ആദ്യത്തെ ഫോട്ടോ എടുത്തത് എത്രാമത്തെ വയസ്സിലാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമയില്ല പക്ഷേ എൻ്റെ ആൽബത്തിൽ കണ്ടിട്ടുള്ള ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എന്റെ ഒരു ഒരൂ രണ്ടാമത്തെ വയസ്സിലെങ്ങാണ്ടാണ് അത് ഞാൻ കുഞ്ഞാണല്ലോ അപ്പം എനിക്കത് ഓർമയില്ല അത് രണ്ടാമത്തെ വയസ്സിലാണ് എടുത്തത് അതെൻ്റെ ആൽബത്തേല് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ കണ്ട് ഉള്ള ഒരു അറിവാണ്

ഒരു മീഡിയം ഫോട്ടോസേ ഉള്ളു ഇപ്പം ഇപ്പം ഇപ്പ എടുക്കണ മാതിരി ഉള്ള രീതിയിലുള്ള ഫോട്ടോ എടുക്കലൊന്നും അന്നില്ലല്ലോ അതുകൊണ്ട് എന്നാലും രണ്ടാമത്തെ വയസ്സിലാണ് എടുത്തിരിക്കുന്നത് അതൊര് ഒരു പച്ച ഉടുപ്പൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് ഇരിക്കുന്ന ആൽബത്തേലൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കുറേ ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഇപ്പം എല്ലാവർക്കും സ്മാർട്ട് ഫോണും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ അന്നത്തെ കാലത്ത് അതൊന്നുമില്ല സ്മാർട്ട് ഫോണുമില്ല ഒന്നുമില്ല അപ്പോൾ ഫോട്ടോ എടുക്കലും അങ്ങനെ ഇല്ലല്ലോ പേരൻറ്റ്സൊക്കെ ആണെങ്കിലും അവർക്കൊന്നും സ്മാർട്ട് ഫോൺ എന്താണെന്ന് പോലും അന്നത്തെ കാലത്ത് ആ ഇല്ല അതറിയത്തില്ല അതുകൊണ്ട് ഫോട്ടോ ക്യാമറ ക്യാമറയിലൊക്കെ പോയി എടുക്കുകയാണല്ലൊ അപ്പോൾ ക്യാമറയിലൊക്കെ പോയി എടുക്കണമല്ലോ അതുകൊണ്ട് അങ്ങനെ ഫോട്ടോ എടുക്കലില്ല കാശ് കൊടുത്ത് എടുക്കണം അപ്പം അങ്ങനെ ഫോട്ടോ എടുക്കലില്ല ഫോട്ടോ എടുക്കലില്ല പിന്നെ ഇപ്പോളാണ് നമുക്ക് അങ്ങനത്തെ കുഴപ്പമില്ല ഇപ്പോളാണേൽ അങ്ങനത്തെ ഇഷ്യൂ ഇല്ല ഇപ്പോളാണേൽ അങ്ങനത്തെ ഇഷ്യൂ ഇല്ല നമുക്ക് എപ്പം വേണേലും ഫോണില് ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്ത് സെറ്റാക്കാം പക്ഷെ നേരത്തെ അങ്ങനെ പറ്റത്തില്ലാത്തതിനാൽ വളരെ കുറവാണ് ഫോട്ടോസൊക്കെ എന്തായാലും ആദ്യത്തെ ഫോട്ടോ രണ്ടാമത്തെ വയസിലാണ് അത് രണ്ട് വയസ്സായിരുന്നെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം അതോ ഒര് വയസാണോന്നറിയത്തില്ല രണ്ട് വയസാണെന്ന് തോന്നുന്നു

ഇപ്പോളാണെങ്കിൽ കുറേ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് നമുക്ക് ഫോണൊക്കെ ഉള്ളത് കൊണ്ട് അതിൻറ്റേതായ മാറ്റങ്ങളുണ്ട് അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഫോണും ഇല്ല പേരൻറ്റ്സൊക്കെ ആണെങ്കിലും എന്താ പറയുക ഇന്നത്തെ മാതിരി ഉള്ള ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ടുള്ള ഒരു ഇതല്ലല്ലോ അപ്പം ഫോട്ടോസൊക്കെ വളരെ കുറവാണ് അന്നത്തെ ആ ഒരു കണ്ടീഷന് പറ്റിയ രീതിയിലൊക്കെ ഉള്ള ഫോട്ടോസും കാര്യങ്ങളും ഒക്കെയേ ഉള്ളു പിന്നെ അത് കഴിഞ്ഞിട്ടും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം എടുത്തത് എന്തായാലും ഒരു രണ്ട് വയസ്സിലൊക്കെ ആണെന്നാണ് തോന്നുന്നത് അതിന് മുന്നേയൊന്നും എടുത്തിട്ടില്ല അത് അതിന് ശേഷം ഫോട്ടോസൊക്കെ അത്യാവശ്യം എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം കുറേ ഫോട്ടോസെടുക്കാറുണ്ട് പിന്നെന്താ

പിന്നെ പിന്നെ അങ്കൻവാടിയിൽ കയറിയപ്പോൾ ആണെങ്കിലും ഒന്നാം ക്ലാസ്സിലോ അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് കുറേ അതൊക്കെ ആൽബത്തേല് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ കണ്ട് അറിയാം വേറെ പിന്നെ വേറെ ഫോട്ടോസ് ഇപ്പം പിന്നെ നമ്മള് ഫോണിൽ ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ട് നമുക്ക് ഇപ്പം തന്നെ നമ്മളുടെ ഫോണിൽ എല്ലാ സംഭവങ്ങളും ചെയ്യാൻ പറ്റുമല്ലോ ഫോട്ടോസും എടുത്ത് എഡിറ്റും ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാം അതുകൊണ്ട് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും എപ്പോളും തന്നെ ഉണ്ട് ഫോട്ടോ എടുക്കലും ഫോട്ടോസും ഉണ്ട് ഇഷ്ടം പോലെ പണ്ടത്തെ ആ ഒരു സിറ്റുവേഷനല്ലാത്തതിനാൽ ഫോട്ടോസൊക്കെ കുറേ ഉണ്ട്